എൻ്റെ നാട്ടിലെ എല്ലാം എല്ലാ ത തരത്തിലുള്ള മതപരവും സാമൂഹികപ പരവുമായുള്ള ആഘോഷങ്ങളിലും എല്ലാ മത വിഭാഗങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളും ഒരു മതത്തിലും വിശ്വസിക്കാത്ത ആളുകളും പങ്കുചേരാറുണ്ട് അത് ഓ ഓണമാണെങ്കിലും പെരുന്നാളാണെങ്കിലും ക്രിസ്തുമസിനും അല്ലെങ്കിൽ സ്കൂളുകളിലുണ്ടാകുന്ന കലാപരിപാടികൾ ആഘോഷയാത്രകൾ ഇതിനെല്ലാം എല്ലാ ആളുകളും ജാതിമതഭേദമെന്യേ പങ്കെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഓണത്തിനെല്ലാം ഒരു ഓ ഓണത്തിനെല്ലാം ഹിന്ദു മതവിഭാഗത്തിൽ വിശ് വിശ്വസിക്കുന്ന സുഹൃത്തുക്കളുടെ വീട്ടിലേക്ക് മുസ്ലിം മതസ്ഥരും ക്രിസ്ത്യൻ മതസ്ഥരെല്ലാം പോകാറുണ്ട് അതുപോലെ പെരുന്നാളിന് ക്രിസ്തുമതസ്ഥരും ഹിന്ദുമതസ്ഥരും ഒരു മുസ്ലിം സുഹൃത്തിൻ്റെ വീട്ടിലും ആ വീട്ടിൽ ആഘോഷത്തിൽ പങ്കെടുക്കാറുണ്ട് അങ്ങനെ പരസ്പരം ആളുകൾ ഒരു സമൂഹമെന്ന നിലയിൽ എല്ലാം മത വിഭാഗങ്ങളെയും ഒരേപോലെ ഉൾക്കൊണ്ട് എല്ലാം എല്ലാ മതവിഭാഗങ്ങളും ഒ ഒരു മതത്തിലും വിശ്വസിക്കാത്തവരും എല്ലാ മതത്തിൻ്റെയും ആഘോഷങ്ങളെയും മതത്തിൽ നിന്ന് അപ്പുറത്തേക്ക് നിൽക്കുന്ന ആഘോഷങ്ങളിലും എല്ലാം ഒരുപോലെ പങ്കു ചേരാറുണ്ട് എന്നുള്ളതാണ് എൻ്റെ അനുഭവം